എനിക്ക് ഇഷ്ടം സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ഇച്ചിരി മൗണ്ടൈൻ ആയിട്ടുള്ള ഏരിയകളാണ് എനിക്കിഷ്ടം ഇപ്പം ഏകദേശം പറയുകാണെങ്കിൽ ആനമുടി അതുപോലെ മീശപ്പുലിമല പിന്നെ റോസ് മല ഇവയൊക്കെയാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇവിടേക്ക് എത്തിപ്പെടുന്ന വഴിതന്നെ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറിയാണ് പോകേണ്ടത് അപ്പം എനിക്ക് ബൈക്കിൽ സോളോ റൈഡ് പോകാനാണിഷ്ടം ആദ്യം എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആനമുടിയാണ് ആനമുടി പോയിട്ട് അതുവഴിയുള്ള ആനമുടി കൂടി ബൈക്ക് ഓടിക്കുക അതും എൻ്റെ ഇഷ്ട്ടപെട്ട വണ്ടിയായ എടുത്തോണ്ട് പോണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് വേണം വണ്ടിയൊക്കെ മേടിക്കാൻ അപ്പം എന്നിട്ട് ആനമുടിയിൽ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് സോളോ ട്രിപ്പ് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരെ ആരേലും കൂട്ടിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചോണ്ടു പോകണം അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ആനമുടി പോവുക ആനമുടി പോയിട്ട് നേരെ പോണ്ടത് ആനമുടി ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് അതു കഴിഞ്ഞിട്ട് താഴെ കൊല്ലത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഇത് റോസ് മല എന്ന് പറയുന്ന റോസ് മലേട അടുത്താണ് നമ്മുടെ അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടം പർവതോം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം റോസ് മലേം പോവുന്നത് ഇതുപോലെന്നെ ഓഫ് റോഡ് കയറിയൊക്കെയാണ് ഇപ്പോഴാണ് കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് റോഡ് കുറച്ചു കൂടെ നന്നാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പോവുന്ന വഴിക്ക് വഴീത്തന്നെ കുറച്ചു റിവറും കാര്യങ്ങളൊക്കെയുണ്ട് അതായത് റോഡ് മുറിച്ചു കുറച്ചു തോടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പറയുവാണെങ്കിൽ ആ പോവുന്ന വഴി കുറച്ചു നമ്മളൊരു മൗണ്ടൈൻ വ്യൂ പോലെയാണ് റോസ് മല ഇരിക്കുന്നത് അപ്പം അവിടുന്ന് നമ്മൾ പോവുന്നത് കാവേരി കാവേരി അല്ല കാവേരി ഏതോ ഒരു നദി ഒഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ ഒരു ആറാണ് അപ്പം ആറിൻ്റെ നടുക്കായിട്ട് കുറെ ദ്വീപുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ദ്വീപിന് പല ഷെയ്പ്പ് ഉണ്ട് പല ഷെയ്പ്പുള്ള ദ്വീപുകളാണ് അതുകഴിഞ്ഞു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മീശപ്പുലിമല ആണ് മീശപ്പുലിമല എന്നു പറയുന്ന കോട്ടയത്തു തന്നെയുള്ളൊരു സ്ഥലമാണ് അപ്പം ഇതും അത്യാവശ്യം മൗണ്ടൈൻ ആയിട്ടുള്ള ഏരിയ ആണ് നല്ല പൊക്കത്താണ് നിൽക്കുന്നത് പിന്നെ മീശപ്പുലിമല കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇല്ലിക്കൽ കല്ലാണ് അത് കാഞ്ഞിരപ്പള്ളീന്ന് ഈരാറ്റുപേട്ട പോവുന്ന വഴി ഈരാറ്റുപേട്ട കഴിഞ്ഞാണ് മീശപ്പുലിമല വരുന്നത് അപ്പം മീശ അല്ല ഇല്ലിക്കല്ല് വരുന്നത് ഇല്ലിക്കല്ല് എന്ന് പറഞ്ഞു കഴിയുമ്പോഴ്ത്തേനും അത്യാവശ്യം നല്ല മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു കല്ലാണ് കല്ലിൻ്റെ പകുതിയേ ഉള്ളൂ പകുതി പൊട്ടിപ്പോയ കല്ലാണ് കിടക്കുന്നത് അപ്പം അത്യാവശ്യം എല്ലാവരും കാണാൻ പോകുന്നൊരു സ്ഥലമൊക്കെയാണ് ഇല്ലിക്കല്ലെന്ന് പറയുന്നത് അത്യാവശ്യം ഞാനൊരു മൂന്ന് നാല് തവണ പോയിട്ടുള്ള സ്ഥലവും കൂടിയാണ് അപ്പം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇല്ലിക്കല്ല് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയുമാണ് പറയാനുള്ളത്